ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ പറയുന്നൊരു ഉദ്ധരിണി ഉണ്ട് ഉദ്ധരണി കൃത്യമായി എങ്ങനെയാണെന്ന് ഓർക്കുന്നില്ല അതിൻ്റെ അർഥം ഇത്തരത്തിലാണ് നിങ്ങൾ ജീവിച്ച് തീർക്കാത്ത ജീവിതങ്ങളെല്ലാം നിങ്ങൾക്ക് കെട്ടുകഥകൾ മാത്രമാണെന്നുള്ളത് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഉദ്ധരണിയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു ജീവിതമാണ് ഒരുദ്ധരണിയാണ് ഇത് ഞാനുമായിട്ടും മാത്രം ബന്ധമുള്ളതല്ല നമ്മളിൽ പലരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു ഉദ്ധരണിയാണ് അത് പറയാനിട വരുന്നൊരു സാഹചര്യം എന്താന്ന് വെച്ചാൽ നമ്മളാരുമായിക്കോട്ടെ നമ്മളനുഭവിക്കുന്ന യാതനകളും കഷ്ടപ്പാടുകളും നമ്മൾ നടന്ന വഴികളും അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാനായിട്ട് അത് നടന്നാളുകൾക്ക് മാത്രമാണ് കഴിയുള്ളു നമ്മൾ എത്രയൊക്കെ വിവരിക്കാൻ ശ്രമിച്ചാലും നമ്മളെത്രയൊക്കെ അതിനെ വാക്കുകൾ കൊണ്ട് അതിൻറ്റൊരു തീവ്രത ഒരാളിലേക്ക് കടത്തി വിടാനായി ശ്രമിച്ചാലും അത് കേൾക്കുമ്പോളുള്ള വികാരത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു കഠിനതീവ്രത മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു ആഴവും പരപ്പും അതെത്തരത്തിലുള്ളൊരു യാതനയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു യാഥാർഥ്യം അറിയിക്കാൻ അനുഭവിച്ച ആൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉദ്ധാരണീ വളരെ പ്രിയപ്പെട്ടതാണ് അത് വളരെ സത്യവുമായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട്